വിദ്യാഭ്യാസവും തൊഴിലിൻ്റെയും കാര്യത്തിൽ സ്ത്രീകളിപ്പം മുന്നോട്ടാണ് നിൽക്കുന്നത് എന്നാലും ഏതാനും സ്ത്രീകൾ പുറകിൽത്തന്നെയാണ് ഇപ്പം കല്ല്യാണം കഴിഞ്ഞതിനു ശേഷം ഭർത്താവിൻ്റെ അടിമയായി കഴിയുക അതുപോലത്തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടിമയായി കഴിയുക അങ്ങനെയൊക്കെയാണ് ചില വീടുകളിൽ പക്ഷേ കൂടുതലായിട്ടും ഇപ്പം സ്ത്രീകൾ മുന്നോട്ട് മുന്നോട്ട് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ടു തന്നെയാണ് നിൽക്കുന്നത് എന്നാലും ഇപ്പോൾ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സ്ത്രീകൾ ഇപ്പോഴും പേടിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ് പിന്നേ പിന്നെയെന്ത് എന്നാണ് പറയുക അതുപോലത്തന്നെ വിദ്യാഭ്യാസം ഇപ്പം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പിന്നെ തൊഴിൽ മേഖലയിലാണെങ്കിലും തൊഴിലിപ്പോൾ സ്ത്രീകൾക്ക് ഇത്ര ശതമാനം എന്നു പറഞ്ഞിട്ട് സ്ത്രീകള തന്നെയാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തൊഴിലവസരങ്ങളൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്